ഇപ്പോൾ നമ്മൾ ക്ക് ക്ക് നെൽകൃഷി ചെയ്യുന്നു അത് അതിനുപയോഗിക്കുന്നത് നമ്മളിപ്പോൾ അത് ട്രാക്ടറ് പോലത്തെ ഓരേ ഉപകരണങ്ങൾ നമ്മൾ നമ്മളുണ്ട് ഇപ്പോൾ നവീനമായിട്ട് അതൊക്കെ ഉപയോഗിക്കുന്നു കാരണോച്ചാൽ ആദ്യമൊക്കെയാണെങ്കിൽ ആൾക്കാരെ കുറച്ച് ആൾക്കാരെ നിർത്തി ആണല്ലോ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ അത് അത് അങ്ങനെ ഇല്ല ഇപ്പോൾ അതിനെക്കാട്ടിലും ഇപ്പോൾ ഈസി ആയിട്ട് ഈ ഈ ട്രാക്ടർ പോലത്തെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു അത് അതിൻ്റെ ഉറവിടം ഗവൺമെൻറ്റ് പരമായിട്ട് ഉള്ളതോ നല്ല നല്ല സഹായം ചെയ്യുന്നു അപ്പോൾ ആ അത് സബ്സിഡി ആയിട്ട് കിട്ടുകയും ഓരോന്ന് ചെയ്തിട്ട് നമ്മൾ അത് മേടിക്കുന്നു ഉപയോഗിക്കുന്നു അതുപോലെ കൃഷിഭവനും പിന്നെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഹെല്പ് ചെയ്തും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഇതിനെ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന് അപ്പോൾ നോക്കാം നോക്കുമ്പോളത്തേക്ക് അത് ഒരു എല്ലാ എല്ലാം കൊണ്ടും നല്ല ഒരു നവീകരിച്ച ഒരു ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നമുക്ക് അത് വലുതായിട്ട് ബുദ്ധിമുട്ട് തോന്നിക്കത്തില്ല ഓക്കേ